ഞാൻ എണീക്കും മുന്നല്ലേ ആരംഭിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് അപ്പം ഏഴാം ക്ലാസ്സില് എട്ടാം ക്ലാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് സ്കൂളില് അപ്പം ഞങ്ങൾക്കൊരു ടീച്ചറുണ്ടായിരുന്നു ടീച്ചറ് ഞങ്ങളെ ചെല കുഞ്ഞ് കുഞ്ഞ് ഡ്രസ്സുകള് അല്ലെങ്കിൽ മഫ്ളെയറ് അങ്ങനെയൊക്കെ ഉള്ളത് തയ്ക്കാനക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പം കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ക്ലാസ് പക്ഷേ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ടീച്ചറ് പഠിപ്പിച്ചു അങ്ങനെ ചെറിയ ചെറിയ ഡ്രസ്സ് കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കുള്ള ഡ്രസ്സുകള് തുന്നാൻ മഫ്ലെയർ ഒക്കെ മഫ്ളെറ് ഒക്കെ തുന്നാനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു അതൊക്കെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് സ്കൂള് സ്കൂള് സമയത്തൊന്നും നമുക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ പത്തിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്ന രണ്ട് മൂന്ന് മാസം അഡ്മിഷൻ്റെ ഒക്കെ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ആ അയിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി കൂടി വന്നു ആ സമയത്ത് അപ്പം അതിന് ഓരോ ഫാഷൻസ് മാറി മാറി വരുമ്പത്തേക്കും നമുക്ക് നമുക്കും അങ്ങനെത്തെ ഡ്രസ്സസ് വേണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുമല്ലോ അപ്പം എല്ലാം ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തുണ്ടായിരിക്കില്ല പഷേ നമ്മുടെ കയ്യില് അയിനുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് നമുക്ക് തൈച്ചെടുക്കാന്നൊക്കെ വിചാരിക്കും അപ്പം തയ്ച്ചെടുക്കണം എന്ന് വിചാരിക്കുമ്പം നമുക്ക് അത്യാവശ്യം തുന്നലൊക്കെ അറിയത്തുള്ളൂ സൂചിയും നൂലൊക്കെ വെച്ച് ചെയ്യാനേ അറിയത്തുള്ളൂ പക്ഷെ അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇത് ഇപ്പം ഡ്രസ്സ് ഒന്നും തയ്ക്കാൻ പറ്റത്തില്ല അപ്പം എൻ്റെ മമ്മിയാണെങ്കിൽ ഒരു തയ്ക്കുന്ന ഒരാളാണ് മമ്മിക്കറിയാം അപ്പം ആ സമയത്ത് മമ്മിയോട് പറഞ്ഞിട്ട് ഞാൻ തയ്ക്കാൻ മമ്മിയോട് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു മമ്മി പഠിപ്പിക്കാം എന്നൊക്കെ പറഞ് അങ്ങനെ അത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു അപ്പം മമ്മി അതിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമുക്ക് പഠിപ്പിച്ചുതന്ന് നമ്മുടെ വീട്ടിൽ അതിനുള്ള മെഷീന് ഉണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നത് കൊണ്ട് അത് പഠിച്ചു അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഓരോ ഇങ്ങനെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ വീട്ടിൽ ഇരിക്കുന്നതൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുത്ത് നമുക്കിഷ്ടപ്പെട്ട ഫാഷൻസിലേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോളത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് ആയിട്ട് തോന്നി അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ നമുക്കൊരു എക്സർസൈസും ആകും അത് അതുപോലെ നമുക്ക് പുതിയ പുതിയ ഫാഷൻസ് ഒക്കെ തയ്ച്ച് ഇടാനും അപ്പം നമ്മളതിട്ട് കാണുമ്പത്തേനും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര താല്പര്യം തോന്നും അപ്പം അവർ നമ്മളോട് അതുപോലെ തയ്ച്ച് തരാമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ അപ്പം എനിക്ക് കുറച്ച് വർക്കുംകൂടെ കിട്ടി ഫ്രണ്ട്സിനും തയ്ച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഡ്രസ്സ് ഒക്കെ തയ്ക്കാൻ തുടങ്ങി അങ്ങനെ തയ്ച്ചുകൊടുക്കുമ്പം നമുക്കൊരു പ്രോഫിറ്റും കിട്ടുമല്ലോ അങ്ങനെ പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയപ്പത്തേക്കും നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് ആയിട്ട് തോന്നി വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രചോദനം ഒക്കെ ഉണ്ടായി അങ്ങനെ പിന്നെ നമ്മൾ ഓഡറ് എടുത്ത് ചെയ്യാൻ തുടങ്ങി അപ്പം മമ്മി തയ്ക്കുന്നതായത് കൊണ്ട് നമ്മൾ കുറച്ച് വർക്ക് കൂടുതൽ വന്നാലും രണ്ട് പേർക്കും കൂടെ തയ്ക്കാനൊക്കെ പറ്റി അങ്ങനെ അങ്ങനെ നമ്മൾ പല ഫാഷൻസിലൊക്കെ കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്തൊക്കെ ചെയ്തു ഒത്തിരി ഒത്തിരി പേർ നമുക്ക് അത് അതിന് ഓഡർ തരുകയും നമ്മളെ അറിയാവുന്നവരൊക്കെ നമ്മൾ ഇട്ട് കാണുന്ന ഡ്രസ്സിൻ്റൊക്കെ മോഡലിലൊക്കെ തയ്ച്ച് തരാ അല്ലെങ്കിൽ ഇപ്പം ഫോണിലൊക്കെ ഇഷ്ടംപോലെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ അയച്ച് തന്നിട്ട് അങ്ങനെയൊക്കെ തയ്ച്ച് തരാമോ എന്നൊക്കെ ചോദിക്കും നമ്മളോട് അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി അപ്പത്തേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി പിന്നെ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ടു അഡ്മിഷൻ കിട്ടി അങ്ങനെ കയറി പിന്നെ പിന്നെ അത് രണ്ട് വർഷത്തേനത് ചെയ്യുന്നുണ്ടായിരുന്നില്ല മമ്മി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാതെ ഞാനായിട്ട് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ പ്ലെസ് ടു കഴിഞ്ഞപ്പോളും നമുക്കിതുപോല ഒരു ഗ്യാപ്പ് വന്നു ഡിഗ്രിക്ക് ചേരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നുനാല് മാസത്തെ ഒരു ഇടവേള കിട്ടി അപ്പം ആ സമയത്തും ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു സമയത്തിനും സ്കൂൾ കുട്ടികളൊക്കെ ഒത്തിരി നമുക്ക് ഓഡറ് കിട്ടി അങ്ങനെ തുന്നാനൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മൾ തുടങ്ങി ചെയ്തു കൊടുത്തു